ആരാണ് ആ ഓക്കെ ഓക്കെ ടൂറിസ്റ്റാണോ ആ ഓക്കെ ഓക്കെ എന്താണ് അറിയേണ്ടത്

നമ്മുടെ സ്ഥലം നമ്മുടെ ആ നമ്മുടെ സ്ഥലമെന്ന് പറയുന്നത് നല്ല അഡ്വഞ്ചറായിട്ടുള്ള നല്ല പ്രകൃതിരമണീയമായിട്ടുള്ള നല്ല സ്ഥലങ്ങളാണ് പിന്നെ ടൂറിസ്റ്റ് ഞാനിവിടെ ലോട്ടറി കച്ചവടം നടത്തുകയാണ് വരുമാനം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വരുമാനമുണ്ട് ആ ആ ജീവിക്കാനുള്ള വകയൊക്കെ ഉണ്ട് നമുക്ക് പിന്നെ ഏറെക്കുറേ ലോട്ടറികൾ നമുക്ക് വിൻ ചെയ്യുന്നുണ്ട് ആ ആ ആ ആ ഇപ്പം നിങ്ങൾക്ക് ലോട്ടറി എടുക്കാൻ താല്പര്യമുണ്ടോ ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബശ്രീയുടെ ലോട്ടറിയും പിന്നെ കാരുണ്യയും പിന്നെ ഓണം ബമ്പറും ഒക്കെ ഉണ്ട് അത് ഒട്ടുമിക്ക ലോട്ടറികളും നമ്മുടെ ഈ ഷോപ്പിലടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ സ്ഥലമെന്ന് പറയുന്നത് ഫിൽഗിരിയിൽ പിന്നെ ലോട്ടറി അടിച്ച് കിട്ടിയാൽ കിട്ടിയാൽ ഊട്ടി കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി

പിന്നെ റൂട്ട്മേപ്പിട്ടേക്കാം നിങ്ങളെവിടെ നിന്നാണ് സംസാരിക്കുന്നത് ആ ഓക്കെ ഓക്കെ നിങ്ങൾ ഇതുവരെയെങ്കിലും ലോട്ടറി എടുത്തിട്ടുണ്ടോ ആ ആ എന്നാൽ നിങ്ങളൊന്ന് എടുത്തു നോക്കു പിന്നെ സ്ഥിരം ലോട്ടറിയിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിരിക്കും കേട്ടോ ആ നിങ്ങൾ ആദ്യം നിങ്ങളൊന്ന് ഈ ലോട്ടറി എടുത്തൊരു എക്സ്പീരിയൻസൊക്കെ നേടിയിട്ട് നമുക്കൊരു ഏജൻസി ഇടാം ഇതുപോലെ ഞാനും ഇതുപോലെയായിരുന്നു ലോട്ടറി എടുത്തെടുത്ത് എൻ്റെ വീടിൻ്റെ കട്ടിലിൻ്റ അടിയിൽ നിന്ന് നിറയെയും ലോട്ടറി ടിക്കറ്റ് നിരത്തി വച്ചിരിക്കുകയാണ് അപ്പോൾ ശരി ഓക്കെ താങ്ക് യു